എടാ കുഞ്ഞൂഞ്ഞെ നീ ക കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞല്ലോടാ നമ്മുടെ പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ നല്ലെയൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് വന്ന് സ്റ്റാ തുടങ്ങി തുടക്കം വച്ചിട്ടുണ്ട് അവിട നീ അവിടെ പോയി ഭക്ഷണം കഴിച്ചെന്ന് എന്നോടൊരാള് പറഞ്ഞല്ലോ ശരിയാണോ ആ ഭക്ഷണം എങ്ങനുണ്ടായിരുന്നു നീ എന്തുവാ കഴിച്ചെ അവിടന്ന് നല്ലെരി ആഹാരമാണോ എങ്ങനെ അവിടെ എങ്ങനെ മസാല ഒക്കെ ചേരുവ ചേരുവ നീ എന്താ കഴിച്ചെ സ കപ്പ ആയിരുന്നോ മീൻ കറി ആയിരുന്നോ അതോ ബിരിയാണി ആയിരുന്നോ കുഴിമന്തി കഴിച്ചോ എന്താ കഴിച്ചേ ആ അത് ന നല്ലതായിരുന്നല്ലേ ഡാ എനിക്ക് ഒരുദ്ദേശ്യമുണ്ടായിരുന്നു ഞ അത് നമ്മളെ ഫാമിലിയായിട്ടൊക്കെ കുടുംബമായിട്ടൊക്കെ ഒന്ന് പോയിട്ടേ പോയിട്ട് അവിടെ പോയൊന്ന് ഒന്നൊന്ന് ഒന്നൊന്ന് ഒന്നാഹാരമൊക്കെ കഴിച്ചിട്ടെ വരാവുന്നൊരു ചെറിയൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ ചോദിച്ചതെ അവിടെ എങ്ങനുണ്ടവിടെ അവിടത്തെ സർവീസ് എങ്ങനുണ്ട് അവിടത്തെ സർവീസ് എങ്ങനുണ്ട് അത് നമ്മള് നമുക്ക് സാധനങ്ങളൊക്കെ സെർവീയ്യുന്നവരേ ആ നീ എന്താ കഴിച്ചെ കപ്പയും മീനുവോ കപ്പ ബിരിയാണിയോ കപ്പ ബിരിയാണിക്ക് എന്താ നമുക്ക് അതിൻ്റെ കൂടെ തന്ന എന്താ മേടിച്ചേ പോത്തിറച്ചിയോ കപ്പയും പോത്തിറച്ചിയും അടിപൊളി സാധനമായിരുന്നല്ലേ നല്ല പ്രീപ പ്രീപറേഷനാലേ ടേസ്റ്റി ആയിരുന്നോ നല്ല രുചിയുണ്ടോ ഓഹ് അവിടുത്തെ എങ്ങനാ നമ്മുടെ കോസ്റ്റൊക്കെ അവരുടെ വില വില വിവരങ്ങളൊക്കെ എങ്ങനുണ്ട് അത് നമ്മളൊക്കെ വല്ല ഫാമിലി ആയിട്ടൊക്കെ ചെന്നാലേ നമ്മള്ക്കൊരു ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് നാലു പേര് ഒരായിരം ആയിരത്തി ഇരുന്നൂറ് വരെ പോയാലും കുഴപ്പമില്ല അങ്ങനെ നമുക്കൊരു ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ടോ ഉണ്ടോ ആ ഹാ അവര് കേബിൻ സിസ്റ്റമാണ് അല്ലെ ഓ അത് നല്ല കാര്യം എന്തായാലും നമ്മള് ഒള്രു ഫാമിലി ആയിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാലേ നമ്മുടെ സീക്രെട്സ് നമ്മുടെ പ്രൈവസി നമ്മളവിടെ കീപേയ്യുന്നു നമുക്കാവശ്യമുള്ളത് വാങ്ങിച്ചുകഴിക്കാന് ആ നല്ല ആഹാരമാണ് അല്ലെ ആ നിങ്ങളെല്ലാരും ആണോ പോയത് ഓ ഫാമിലി ആയിട്ട് പോയിരുന്നോ ആ നിങ്ങള് മൂന്നുപേരല്ലേ ഉള്ളു എണ്ണൂറ് രൂപ മേടിച്ചോ ഓ തരക്കേടില്ലല്ലോ മൂന്ന് പേർക്ക് ആ ഞങ്ങളും മൂന്നാലു പേരുണ്ട് ആ എന്നാല് ഒരു ദിവസം ഒന്ന് പോയി നോക്കട്ടെ ആ വലിയ കുഴപ്പമില്ലെന്നും വരില്ലെ വല്ലപ്പോഴും നമുക്കൊരു ഒരു എൻറ്റർറ്റെയിൻമെൻറ്റും വേണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി ആഹാരത്തിൻ്റെ രീതി അതിൻ്റെ രുചി എന്നും നമ്മളീ വീട്ടില് കഴിച്ച് കഴിച്ച് മടുക്കത്തില്ലെ നമ്മളിതെന്നും വി വീടുകളിലൊക്കെ എന്താ പറയുക സാധാരണ മോർ ഓർ ലെസ്സ് എല്ലാ ഏറെക്കുറെയൊക്കെയും മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഈ ഒരേ വെറൈറ്റി വെറൈ നമുക്കൊരു ചേഞ്ചസും ആവോമല്ലോ ഒരു വെറൈറ്റി ഒക്കെ വരണ്ടേ നമ്മള് കഴിക്കുന്നെ ആഹാരം നമ്മളിപ്പോള് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കും ശരിയാണ് വീട്ടിലുണ്ടാക്കി കഴിച്ചാല് കുറച്ചുംകൂടി നൽ നല്ലതാണ് എന്നാലും നമുക്കൊരു ഒരു ഒരു ചേഞ്ചസ് ഒരു ചേയ്ഞ്ച് വരുത്താന് വേണ്ടിയിട്ടാണെ അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളതെയുള്ളു മ്മ് കൊള്ളാമല്ലേ മ്മ് മ്മ് എങ്ങനുണ്ട് തിരക്കുണ്ടോ നമ്മളേത് സമയത്ത് ചെന്ന ത ബാ ബാ വൈകിട്ടൊക്കെ നല്ല തിരക്കാണോ ഓഫ് അത്രയും തിരക്കൊക്കെ ഉണ്ടെങ്കില് പിന്നെ നമ്മള് പോയ മണിക്കൂറുകള് അവിടെ ഇരിക്കണ്ടേ ആഹാ ഓ ഹാ ചില സമയത്ത് പോയി ക്യു നില്ക്കണോ എൻ്റെ പൊന്നെ അങ്ങനെ നമ്മള് ഇപ്പോള് അവിടെ പോയി നമ്മള് വെ വെളിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് സീറ്റ് ഒഴിവാകുന്നതനുസരിച്ച് നമുക്ക് അത് ഇരിക്കാന് പറ്റുവുള്ളോ അത്ര തിരക്കാണോ ഓ ആ പുതിയ ഹോട്ടലും അല്ലെ അതുകൊണ്ടായിരിക്കും റെസ്റ്റോറൻറ്റൊക്കെ പുതിയതല്ലെ അപ്പോള് അവരും കാര്യമായിട്ടൊക്കെ സെർവീയ്യുന്ന് ആദ്യം മാർക്കറ്റ് പിടിക്കണ്ടേ മാർക്കറ്റ് പിടിക്കാന് വേണ്ടിയിട്ടാണ് അവരീ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും തിരക്കുണ്ടല്ലേ നല്ല തിരക്ക് ഓ മ്മ് ആ ന്നാ ശരി എന്നാല് ഞാൻ നോക്കട്ടെ ഞങ്ങളെല്ലാവരുംകൂടൊന്നു പോകാനുള്ള പരിപാടിയിലാണ്